ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് സെറ്റാണ് അത് ഞാൻ കൂ മേ എനിക്ക് മെയിനായിട്ട് വാങ്ങിക്കാൻ കാരണം യാത്രയൊക്കെ പോകുമ്പോൾ വളരെ അധികം സമയം ബസ്സിലും മറ്റുമായിട്ട് ഇരിക്കേണ്ടി വരുന്ന സമയത്ത് പാട്ടു കേൾക്കാനും മാറ്റുമായിട്ട് ഹെഡ് സെറ്റ് എന്നെ വളരെ അധികം സഹായിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അതിനേ പറ്റി പറയുകയാണെങ്കിൽ എന്താ ക്ലിയറായിട്ടെല്ലാം കേൾക്കാൻ സാധിക്കുന്നു പിന്നെ ഇടക്ക് വെച്ച് കോൾ വരുകയാണേ തന്നെ അതിലൂടെ തന്നെ സംസാരിക്കാൻ പറ്റും അങ്ങോട്ട് പറയുന്നത് അവർക്കു കേൾക്കാനും വ്യക്തമായിട്ട് കേൾക്കാനും അവിടെ നിന്ന് പറയുന്നത് എനിക്ക് വ്യക്താമായിട്ട് കേൾക്കാനും ഒക്കെ സഹായിച്ചു പിന്നെ ഒരുപാട് രണ്ട് വർഷത്ത് രണ്ടര വർഷത്തോളം ഞാനാ ഹെഡ് സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ